ഇന്ത്യയിലെ വിനോദസഞ്ചാരം പണ്ടത്തെക്കാളും വച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ ഉള്ളവരും അതായത് സംസ്ഥാനം വേറെ സംസ്ഥാനത്ത് നിന്നുള്ളവരും വേറെ സ്ഥലത്തേക്ക് വരുന്നു സ്റ്റേറ്റ്ന്ന് വേറെ സ്റ്റേറ്റിൽ ഉള്ളവര് ഇപ്പം കേരളത്തിൽ ഉള്ളവര് രാജസ്ഥാൻ കാണാനും പിന്നെ ആന്ധ്ര കാണാനും കർണാടക കാണാനുമൊക്കെ പോകുന്നുണ്ടല്ലോ ഓരോ ഇന്ത്യയില് പല പല സ്ഥലത്തും വ്യത്യസ്തമായ കാഴ്ചാ രീതികളാണ് ഉള്ളത് അത് പിന്നെ ആ സ്ഥലത്തെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമുക്ക് വേണമെങ്കില് ഡൽഹി എടുക്കാം ഡൽഹിയിൽ ആണെങ്കിൽ ഒത്തിരി കാണാനുണ്ട് താജ്മഹൽ കാണാനുണ്ട് അത് എന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പം എടുത്ത് അതായത് നമുക്ക് എടുത്ത് പറയത്തക്ക ഒരു ഇതുള്ള ഒന്നാണ് താജ്മഹാല് കുത്തബ്മിനാറ് ഗേറ്റ് ഓഫ് ഇന്ത്യ പിന്നെ ഗോൾഡൻ പാലസ് പിന്നെ നമ്മള് മഹാരാഷ്ട്ര പിന്നെ കുറേ ജയ്പൂരിൽ ഒക്കെ പോകുമ്പം അവിടെ കുറേ പാലസുകൾ ഒക്കെ ഉണ്ട് പണ്ടത്തെ രാജഭരണ കാലത്തുള്ള പാലസ് ആര്യ വർദ്ധ കാലം അങ്ങനൊക്കെയുള്ള കുറെ കാലഘട്ടത്തില് ഉണ്ടായിരുന്ന കുറെ കുറെ പാലസുകളും അതിന്റെ അവശേഷിപ്പുകളൊക്കെ ഉണ്ട് അത് നമുക്ക് കർണാടക ഭാഗത്തോട്ടു വരുവാണെങ്കില് അവിടെ എന്താ പറയുക കുറേ കുറേ കല്ലും കൊണ്ട് ഉണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങള് പണ്ടത്തെ രാജാക്കന്മാർ ഉണ്ടാക്കിയ കൊട്ടാരങ്ങൾ ഉണ്ട് ക്ഷേത്രങ്ങളുണ്ട് കുറേ ക്ഷേത്രങ്ങൾ ഉണ്ട് അതേപോലെത്തന്നെ അം ഇവിടെ നമ്മുടെ ഇപ്പം തമിഴ്നാട് ഭാഗമാകുമ്പോൾ അവിടെ കുറേ അമ്പലങ്ങളാണ് കുറേ ദേവീക്ഷേത്രങ്ങളാണ് അതും എന്ത് രസമായിട്ടാണ് വളരെ മനോഹരമായിട്ട് ഗോപുരം പോലെ വലിയ ഗോപുരം പോലെ ഉണ്ടാക്കിയേക്കുന്നത് കാണാൻ ആൾക്കാര് ആൾക്കാർക്ക് ഉണ്ടല്ലോ ഈ പഴയ കാല പഴയകാലത്ത് പഴയ കൊത്ത് പണി കല്ലിൽ കൊത്തു പണിയൊക്കെ ചെയ്തത് കാണാനാണ് അവര് താൽപര്യപ്പെടുന്നത് പിന്നെ നമ്മള് ഇന്ത്യ ഇവിടെ കേ വയനാട്ടിലെ കേരളത്തിലോട്ട് വരികയാണെങ്കില് നമുക്ക് കുറേ കായല് പിന്നെ കടല് കായലോരം ഉണ്ടാകും പിന്നെ നല്ല സീഫുഡ് ഉണ്ട് പിന്നെ വള്ളംകളി കാണാം പിന്നെ ഇവിടെയും ഉണ്ട് കെട്ടോ കാണാനൊക്കെ ഇഷ്ടം പോലെ പിന്നെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഏരിയാണ് പിന്നെ ഒത്തിരി ഒത്തിരി കാണാനുള്ളത് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അതൊക്കെ ഓരോ ഓരോ വ്യക്തികളെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിൽ ആയിരിക്കുമല്ലോ ഇഷ്ടം ചിലവർക്ക് ഹിമാലയത്തിൽ പോകാനാണ് ഇഷ്ടം ചിലവർക്ക് വല്ല മഞ്ഞുമലയൊക്കെ ഉള്ള സ്ഥലത്ത് പോകാൻ ആയിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും